ഇപ്പോൾ പത്രത്തിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ റേഡിയോ പോലത്തെ മാധ്യമങ്ങളിൽ അവർക്ക് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു അത് എന്താ പറയുക പ്രത്യേകമായിട്ടല്ല അവരുടെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊരു അവസരം നൽകുന്നത് കുറച്ചും കൂടി ഒരു നല്ലതാണെന്നു തന്നെയാണ് എൻ്റേയും അഭിപ്രായം അവരുടേതായ മാനസിക സംഘർഷങ്ങൾ പിരിമുറുക്കങ്ങളൊക്കെ മാറാനും അവർക്ക് അവരുടേതായ സംശയങ്ങൾ ഇപ്പോൾ നമ്മളോടു പറയാൻ പറ്റാത്ത സംശയങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് തീർക്കാനും അവരുടെ പ്രശ്നങ്ങളും അവരുടെ എന്താ പറയുകാ ടെൻഷൻ അവരുടെ ബുദ്ധിമുട്ടുകൾ അപ്പോൾ അതായത് എല്ലാവരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ചില സമയത്ത് ഇപ്പോൾ റേഡിയോയിലുള്ള ഒരാർജേയോടോ അവരോടൊക്കെ നമുക്ക് അവരുടെ അതായതവരുടെ പേരും കാര്യങ്ങളൊന്നും പറയാതെ തന്നെ അവർക്ക് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പറയാൻ പറ്റും ആ സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി അല്ലെങ്കിലാ ഒരു എന്താ പറയുക ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു മനസ്സ് അത് അങ്ങനെ നമുക്ക് പെട്ടെന്ന് വേറൊരാളോട് പറഞ്ഞാൽ കിട്ടണമെന്നില്ല കാരണം ഒരു അപരിചിതനോട് യാതൊരു പേടിയും കൂടാതെ അവരുടെ കാര്യങ്ങൾ ഓപ്പണായി പറഞ്ഞതിനൊരു പരിഹാരം കിട്ടുക ഇനി പരിഹാരം കിട്ടിയില്ലെങ്കിൽ കൂടി അവർക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമ്പോൾ അവർക്ക് മാനസികമായിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ അത് അവർക്ക് നല്ലതായ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു അങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ റേഡിയോയിൽ ആയാലും മാസികകളിലായാലും പത്രങ്ങളിലായാലും അത് കുറച്ചും കൂടി ബെറ്റർ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അനുമാനം